നമ്മുടെ പ്രദേശത്ത് പ്രദേശത്തിന് അനുയോജ്യമായതും ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഏറ്റവും മെച്ചപ്പെട്ടതുമായ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്നതുമായ ഒരു സംരഭമായി ഞാൻ കണക്കാക്കുന്നത് പ്ലാസ്റ്റിക്കിൽ നിന്നും തുണി അഥവാ പ്ലാസ്റ്റിക് മെറ്റീരിയലുകൊണ്ടുതന്നെ തുണിപോലുള്ള തുണിത്തരങ്ങൾ നിർമിക്കുന്ന പദ്ധതിയാണ് അതായത് പ്ലാസ്റ്റിക്കിൽ പ്ലാസ്റ്റിക്കിനെ നൂലാക്കി മാറ്റുകയും അതുവഴി ആ നൂലുകൾ സേർത്തുകൊണ്ട് പ്ലാസ്റ്റിക് ഫാബ് പ്ലാസ്റ്റിക്കിൽനിന്ന് തുണിത്തരങ്ങൾ നിർമിക്കുന്ന ഒരു പദ്ധതിയാണ് ഞാന് വിഭാവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇത് ചെയ്യുന്നതുവഴി ഒരുപക്ഷെ പ്ലാസ്റ്റിക്കിൻ്റെ അനേക പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാലിന്യങ്ങളുടെ കുറവ് ഒരുപക്ഷെ ഉണ്ടാവുകയും പ്ലാസ്റ്റിക് എന്നത് സുലഭമായി ലഭിക്കുന്ന ഒന്നായതുകൊണ്ട്തന്നെ കുറഞ്ഞ ചിലവിൽ നമുക്ക് മെച്ചപ്പെട്ട തുണിത്തരങ്ങൾ നിർമ്മിക്കാൻ കഴിയുകയും ഏത് കാലാവസ്ഥക്കും അനുയോജ്യമാം വിധത്തില് അത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നതരത്തിലുള്ള പുതിയപുതിയ പ്രോഡക്ടുകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുകയും ഇതുവഴി സമൂഹത്തില് പ്ലാസ്റ്റിക് നിർമാർജനത്തിന് ഒരു പുതിയ മേഖലതന്നെ സൃഷ്ടിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് അപ്പം ഇത്തരം സം സംരംഭങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ താഴേക്കിടയിലുള്ളവർക്കും ജോലി ലഭിക്കുന്നതിനും അതുവഴി ഒരു നല്ല വരുമാന മാർഗം അവർക്ക് ലഭിക്കുന്നതിനും അതുവഴി ധാരാളം കുടുംബങ്ങൾ നല്ല നിലയിലേക്ക് മാറാൻ കഴിയുന്നതിനുമുള്ള ഒരു കാരണം കൂടെ ആയി ഇത് മാറും ആ നിലയ്ക്ക് ഇത്തരം സംരംഭങ്ങൾ തുടങ്ങിയാൽ നല്ലതായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് വിദേശകമ്പോളങ്ങളിലും ഈ തുണിത്തരങ്ങൾ എത്തിക്കുന്നതുവഴി മെച്ചപ്പെട്ട ഒരു ലാഭവും വരുമാനമാർഗവും ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു